ഞങ്ങളെ പ്രദേശത്ത് വണ്ടുരാണ് ആസ്പത്രി ഉള്ളത് പ്രസവ പരിചരണം ഉണ്ട് അവിടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ടു ഇല്ല അവിടെ ബിൽഡ്ഡിങ്ങൊക്കെ നടന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദൂരെ പോകണം അത് മഞ്ചേരി അല്ലെങ്കില് കോഴിക്കോട് അല്ലെങ്കിൽ നിലമ്പൂർ അവിടേ ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് നോക്കുന്നത് ഇവിടെ ഉണ്ട് കുറച്ച് ദൂരെയായിട്ട് ഉണ്ട് അതിനു നമ്മൾ നല്ല പൈസ കൊടുക്കുകയും വേണം അത് നല്ല പരിചരണം തന്നെയാണ് എന്താണ് പൈസ കൊടുത്താലും പാവപ്പെട്ടവര്ക്കൊന്നും അത് പറ്റില്ല നല്ല ഉള്ള പാര്ട്ടിക്കാര്ക്ക് തന്നെ ഇതൊക്കെ പറ്റുള്ളൂ എന്തുകൊണ്ടെന്ന് വച്ചാൽ കുട്ടികളേയും കുട്ടിനേയും അമ്മയേയും നല്ല പോലെ ഓര് പരിചരിച്ച് അവര്ക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ആ ദിവസം കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് പറഞ്ഞയക്കും അതൊക്കെ നല്ല ഒരു കാര്യം തന്നെയാണ് ഇവിടെ അല്ലാതെ ഇവിടെ ഒന്നുമില്ല ഒക്കെ ദൂരെ തന്നെയാണ് ഉള്ളത് അടുത്തൊന്നുമില്ല